നമസ്കാരം ഇത് പാൻ കാർഡ് കസ്റ്റമർ സർവിസിൻ്റെ നമ്പറ് അല്ലേ ഞാൻ പാൻ കാർഡിന് വേണ്ടി ഒരു അഞ്ച് മാസം മുമ്പ് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അക്ഷയയിൽ പോയി എല്ലാം ചെയ്തു എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഒരു മൂന്നുമാസത്തിനകം കിട്ടുമെന്നായിരുന്നു ഇപ്പം എനിക്കതിൻ്റെ ആവശ്യം ഉണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ടിങ്ങനെ പറഞ്ഞത് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു ഒരു എൻ്റെ കൂടെ ചെയ്തതാ ബട്ട് എനിക്ക് തോന്നുന്നു ഒരു അത് അപ്ലൈ ചെയ്തിട്ടൊരു രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം അയാൾക്ക് കിട്ടി അപ്പം എപ്പഴാ ഇതൊന്ന് കിട്ടുക എന്ന് എങ്ങനെയാ അറിയുക എൻ്റെ ഐ ഡി ഒമ്പത് നാല് രണ്ട് പൂജ്യം മൂന്ന് മൂന്ന് നാല് ഒമ്പതാണ് ഡേറ്റ് ഓഫ് ബർ സെപ്റ്റംബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഇതിൻ്റെ വിവരം എനിക്ക് കൂടുതൽ എവിടുന്ന് അറിയാൻ പറ്റും എങ്ങനെയാ ഇത് വാങ്ങുക ഇതെനിക്ക് ബൈ പോസ്റ്റ് കിറ്റുമോ അതോ അവിടെ വന്ന് വാങ്ങണോ എന്തെങ്കിലും അവർ ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ അതുമാത്രമല്ല എനിക്കിപ്പോൾ വിദേശത്ത് പോവാൻ ശരിയായിട്ടുണ്ട് അപ്പം ആധാർകാർഡും പാനും ലിങ്ക് ചെയ്യാനായിട്ട് ഒരു ആവശ്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ പാൻ കാർഡ് കിട്ടാതെ എനിക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് അത് കിട്ടിയിരുന്നാൽ കൊള്ളാമായിരുന്നു കാരണം ഇതിപ്പം അഞ്ച് മാസത്തോളമായി അപ്പം എൻ്റെ ഫ്രണ്ട്സിനും ബാക്കിയുള്ള എല്ലാവർക്കും എൻ്റെ കൂടെ ഏകദേശം അയച്ച എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു ഇപ്പം ഇനി ഈ അത് എന്തുകൊണ്ട് എൻ്റെ വൈകുന്നത് എന്ന് എങ്ങനെയാ അറിയുക എന്തെങ്കിലും പ്രോബ്ളൂണ്ടോ ചെയ്തതിൽ അതിനി ഒന്നിൽനിന്ന് അപ്ലൈ ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുംകൂടിയൊന്ന് നോക്കി പറയാമോ കാരണം ഇത് ഇപ്പോൾ അത്യാവശ്യമാണ് എനിക്കത് വേണം പാൻ കാർഡ് അപ്പോൾ എങ്ങനെയാണെന്ന് വച്ചാൽ ഒന്ന് നോക്കി ഒന്ന് പെട്ടെന്ന് അറിയിക്കാമോ ഞാനിത് ഇനി ഇപ്പം ഇന്ന് വിളിക്കണോ അതോ രണ്ട് ദിവസം കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ അതോ നിങ്ങളെനിക്ക് മെയിൽ അയക്കുമോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പറയാമോ